രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിക്കാൻ ചിലർ മതത്തെ മുതലെടുക്കുകയും അതു മൂലം നമ്മുടെ നാടുകളിലും നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയം മുതലെടുക്കുന്നതു കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മത തീവ്രവാദം നിബന്ധങ്ങൾ അത് മുതലെടുത്തു കൊണ്ട് നമ്മൾക്കു നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ മതം ഉൾപ്പെടുത്തുന്നതു കൊണ്ടാണ് ഇന്ന് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ പലയിടത്തും പലർക്കും എത്താതെ പോകുന്നതും അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവരിലേക്കെത്താതെ പോകുന്നതും അത് രാഷ്ട്രീയത്തില് മതം കൊണ്ടുവരേണ്ട ആവശ്യമില്ല വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കാൾ കൂടുതൽ എടുക്കേണ്ടത് നമ്മുടെ സേവന അനുഷ്ടിക്കുക എന്നാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയം കൊണ്ട് ഉപ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ മനുഷ്യരെ മ് ജനങ്ങൾക്ക് സേവനം ചെയ്യുക അതാണിതിനകത്തേറ്റവും വലിയ കാര്യം അതല്ലാതെ അതിനകത്തേക്ക് മതത്തെ കൊണ്ട് മതത്തെ കടത്തി വിടുകയും മതം മതമായിട്ടു ബന്ധപ്പെടുത്തി കേരളമെന്ന സ്ഥലത്ത് മതതീവ്രവാദം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ മുക്കാൽ പ്രശ്നങ്ങളിന്ന് മതപരമായിട്ടുള്ള കാര്യങ്ങളെകൊണ്ട് മാത്രം നടത്തുന്നതാണ് മുൻപ് ഈ ഇട ഈ ഒരു കുറച്ചു കാലങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനുമുമ്പ് വരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കേരളീയരുടെ ദേശീയ ഉത്സവമായിരുന്നു ഓണം ഇന്ന് വളരെ വളരെ വളരെ ദുഃഖത്തോടു കൂടി നമ്മൾ അത് എല്ലാവരും ആഘോഷിച്ചു കൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒന്നുമില്ല അതിൽ മതത്തെ കൊണ്ടു വന്ന് ഓരോ ജാതിയിലും മതത്തിലും പെട്ടവരുടെ ഓരോ ജാതിയിലും മതത്തിൽ പെട്ടവരുടെ ആഘോഷങ്ങളാക്കി അതിനെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള മതവിശ്വാസികൾ രാഷ്ട്രീയത്തിൽ കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാകുന്നത് അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് അതിലേറെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന നാവുകൊണ്ട് ഇന്ന് മനുഷ്യൻ വളരെ വളരേ വേദനാപൂർവ്വം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വെട്ടിക്കുത്തും കൊലപാതങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അതുമൂലം ഒരു അതുമൂലം നമ്മുടെ സമാധാനവും സന്തോഷവും ഇല്ലാതെ പോകുകയും ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളെ നഷ്ടപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസത്തെ രാഷ്ട്രീയവും മതവും കൊണ്ടു വരുമ്പോൾ നമ്മൾക്ക് മതവിശ്വാസം മതവിശ്വാസം നോക്കി നമുക്ക് രാഷ്ട്രീയം ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടാകും അപ്പോൾ അതിൻറ്റകത്തു നിന്നു കിട്ടേണ്ട അതായത് ഒരാൾ അർഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരികയും അതിനുപരി നമ്മൾ നമ്മൾക്ക് കിട്ടാതെ വരുന്നതു കൊണ്ടാണ് വേറെ അതിൻ്റെ ബാഹ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും പക്ഷെ അതിന് നല്ല വശവും ചീത്ത വശവും കണക്കിലെടുത്തിട്ടാണ് ഈ മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്കു കൊണ്ടു വരുത്താതിരിക്കുക മതം വേറെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയം കൊണ്ടു നമ്മളെന്താണുദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് നമ്മൾക്ക് നമ്മളുടാവശ്യങ്ങൾ നടത്തി കൊണ്ടു വരാനും നമ്മൾക്കാവശ്യ നമ്മുടെ ആവശ്യതകളെ പരിഗണിക്കാനും നമ്മൾക്കു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാനുമാണ് മതം അതോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് മതം എല്ലാവർക്കും ഇപ്പം ഒരു ജാതിയിൽ പെട്ട ആൾക്കാർക്ക് അതിൽ തന്നെ വിശ്വസിക്കണമെന്നില്ല ഒരു ജാതിയിൽ പെട്ട ആരും ഒരാളും അതിൽ തന്നെ വിശ്വാസം കൊണ്ടു നടക്കുന്നവരല്ല ചില നിരീശ്വരവാദികളുണ്ട് അങ്ങനെയുള്ളവരുടെക്ക്യോട്ടൊക്കെ ആണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള മതവെറികളുണ്ടാക്കിയും മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തന്മൂലം ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന കൂടുതലും കൂടുതലുമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൈ കടത്താതിരിക്കുമ്പോൾ അതു കൊണ്ടാകുന്ന അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് നന്മകളുമുണ്ട് മതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ജാതിക്ക് ഒരു ജാതീനെ കാണാൻ പാടില്ലാത്ത അതായത് അവർക്കത് കാണുമ്പോഴത്തേക്ക് ഇന്ന നമ്മളുടെ രാഷ്ട്രീയമല്ല എന്നുള്ളൊരു വെറു ചിന്തയോടു കൂടിയാണ് അവർ നമ്മളെ കാണുകയും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴത്തിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് വളരെ ബുദ്ധിമുട്ടുകൾ കണ്ടു തന്നെ അപ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മളുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാതെ വരികയും രാഷ്ട്രീയ ചിന്തകളാകുമ്പോൾ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ട് കുട്ടികളെല്ലാം ബുദ്ധിമുട്ടുകയും വളർന്നു വരുന്ന തലമുറക്കതൊരു നല്ലൊരു നല്ല തുടക്കമല്ല കാരണം വളർന്നു വരുന്ന കുട്ടികളുടെ തലച്ചോറിലേക്കു കയറുന്നത് ജാതിയുടെയാണ് കയറുന്നത് ഞാനിന്ന ജാതി നീ ഇന്ന ജാതിയെന്നുള്ള വേർ വ്യത്യാസത്തോടെ അവർ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യും അതുമൂലം നമ്മുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമ്മളതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മതത്തെ മുതലെടുക്കാതെ തന്നെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്